ഐ ക്യുവിൻ്റെ തെർട്ടി വോൾട്ട് ബാറ്ററി ചാർജർ നല്ലൊരു ഉല്പന്നമാണ് മറ്റ് ചാർജറിനെ അപേക്ഷിച്ച് എത്രയും പെട്ടന്ന് ചാർജ് കയറും എന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ വോൾട്ടേജ് വേരിയേഷനിലും ഇത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതും ഈ ഐ ക്യു തെർട്ടി വോൾട്ട് ബാറ്ററി ചാർജറിൻ്റെ ഒരു പ്രത്യേകതയായിട്ടാണ് കണ്ട് വരുന്നത് ഇത് മറ്റു ചാർജറിനെ അപേക്ഷിച്ച് നല്ല ഗുണമേന്മയും നല്ലൊരു പ്രോഡക്ടുമാണ്